അവയാണ് ഇടയ്ക്കൽ ഗുഹ അതുപോലെതന്നെ ബാണാസുര ഡാം ഒരുപാട് കാപ്പിത്തോട്ടങ്ങൾ ഒരുപാട് വളരെ ഭംഗിയേറിയ പ്രദേശങ്ങൾ വയനാട്ടിലുണ്ട് വയനാട്ടിലേറ്റവും കൂടുതൽ വെള്ളച്ചാട്ടവും മലയും സൗന്ദര്യവും പ്രകൃതിഭംഗിയുമാണുള്ളത് ഇതെല്ലാമാണ് ഞങ്ങൾ ആസ്വദിക്കാറ് പിന്നെ വയനാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്റർ സുൽത്താൻ ബത്തേരിലുള്ള സുൽത്താൻ ബത്തേരിയിലുള്ള തിയേറ്ററാണ് സുൽത്താൻ ബത്തേരി അങ്ങാടിയിൽ തന്നെയുള്ള മാളിൽ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയേറ്ററുള്ളത് ഞാൻ അവിടെ പോയാണ് തീയേറ്ററിൽ സിനിമ കാണാറുള്ളത് പിന്നെ പ്രാഥമികമായ പണ്ടത്തെ ആചാരങ്ങളും ഒരുപാട് പ്രാദേശികമായ നൃത്തപരിപാടികളും വയനാട് ജില്ലയിലുണ്ട് വയനാട് ജില്ലയിൽ എല്ലായിടത്തും നമുക്ക് പോയിരിക്കാനും പ്രകൃതി ആസ്വദിക്കാനും കഴിയുന്നു നമ്മുടെ കയ്യിൽ പൈസയില്ലാതെയും നമുക്കൊരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വയനാട്ടിലുണ്ട് പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും നമുക്ക് പൈസ ആവശ്യമില്ല നമുക്കത് കാണാനുള്ള താൽപര്യവും നമ്മുടെ കാലിന് ആരോഗ്യവുമുണ്ടെങ്കിൽ നമുക്ക് വയനാടിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാം